കാർഷിക മേഖലയില് സർക്കാർ വയ്ക്കുന്ന പദ്ധതികള് കർഷകർക്കു ഗുണകരമായിട്ടു മാറണമെന്നുണ്ടെങ്കില് അത് അവര് നല്ല രീതിയില് പ്രൊവൈഡ് ചെയ്യണം ഇപ്പോള് ഉദാഹരണത്തിനു നല്ല സുസ്ഥിരമായിട്ടുള്ള ഭൂമിയായിരിക്കണം നൽകേണ്ടത് കൃഷിയുടെ അടിസ്ഥാന കാര്യമാണല്ലോ ലാൻഡ് അതുപോലെ അടുത്ത ലേബര് അങ്ങനത്തെ കാര്യങ്ങള് അപ്പോള് ലാൻഡ് അടിപൊളിയാവണം നല്ല ഭൂമി അവർക്ക് പതിച്ചുനല്കണം കർഷകരില്ത്തന്നെ ഒരുപാട് ഭൂമി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും അവരെ കാർഷിക സർക്കാര് നല്ല ഒരു കർഷകർക്കായിട്ടുള്ള പദ്ധതിയിൽ ഉൾക്കൊള്ളണം ഉൾക്കൊള്ളിക്കണം അപ്പോള് ഒരു ലാൻഡ് തെരഞ്ഞെടുക്കുമ്പോള് അവിടുള്ള തന്നെ ജല സേചനം അതുപോലെ തന്നെ അവിടുള്ള ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഭൂമി പതിച്ചു കർഷകർക്കു നൽകണം അതുപോലെ തന്നെ ഭൂമിക്കും പിന്നെ അതുപോലെ തന്നിട്ട് വേണ്ടതാണ് വിള കാര്യങ്ങള് ഈ വിളയും ഉപയോഗിക്കുന്ന ഒരു വിളയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റുള്ള അതിന് അതിന് വേണ്ട അതിനെ പുഷ്ടിക്കാൻ വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ അതിലൊക്കെ അവര്ക്ക് ക്രെഡിറ്റ് ഇൻഷുറൻസ് കൊടുക്കണം അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയില് അവർക്ക് ലോണ് കൊടുക്കണമെന്നുണ്ടെങ്കില് അവര്ക്കു വലിയൊരു സഹായമാകും അതുപോലെ തന്നെ അവര്ക്ക് ഡിജിറ്റലായിട്ട് ഇന്നീ പുതിയ കാലത്ത് കർഷകർക്ക് ഡിജിറ്റലായിട്ടുള്ള അഡ്വൈസറി നമ്മള് കൊടുക്കേണ്ടതുണ്ട് ഡിജിറ്റലായിട്ടുള്ള വലിയ വലിയ ഹെക്ടര് കണക്കിന് സ്ഥലത്തില് അവർക്കു കൃഷി ചെയ്യാനുള്ള സഹായകമാവുന്ന ഡിജിറ്റൽ ആയിട്ടു വേണ്ട ആയിട്ടുള്ള അതുപോലെ തന്നെ മോഡേണായിട്ട് വേണ്ടിയിട്ടുള്ള ഒക്യൂപ്യൻസ് നമ്മള് കൊടുക്കേണ്ടതുണ്ട് പിന്നെ അവിടെയുള്ള സോയിലിൻ്റെ ഹെൽത്തും അതുപോലെ തന്നെ അവിടെയള്ള ഫെർട്ടിലിറ്റി നമ്മള് ഉപയോഗിക്കുന്ന വളങ്ങളുടെ അതിൻ്റെ എത്രത്തോളം അതിന് അനുയോജ്യമാണ് അതിനുള്ള ചെക്കിങ്ങ് നമ്മള് ഈ ഈ ഗവൺമെന്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കാർഷിക വകുപ്പുണ്ടല്ലോ ഗവൺമെന്റിൻ്റെ കീഴില് ആ വകുപ്പില്നിന്നു കൃത്യമായിട്ടുണ്ടായാല് ഉണ്ടാവണം അതുപോലെ തന്നെ അതൊക്കെയാണ് കർഷകർക്കു നന്നായിട്ട് എന്തു ചെയ്യുന്നത് ഗുണകരമാകുന്നത് കാർഷിക മേഖലയിൽ വയ്ക്കുന്ന അതുപോലെ തന്നെ

കർഷകരില്ത്തന്നെ ഈ കൃഷിയെപ്പറ്റി നല്ല അവബോധമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും കാരണം അതുതന്നെ അവര് കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അവര്ക്ക് വേറെയുള്ള അത് അറിവുകളുടെ കുറവ് കൊണ്ടൊക്കെയായിരിക്കാം അപ്പോള് അവർക്കിതില് നന്നായിട്ടുള്ള അവബോധം നമ്മള് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവരുടെ വിളകള് നല്ല രീതിയില് മാർക്കറ്റില് അതിന് നല്ല വാല്യു നമ്മള് കൊടുക്കേണ്ടതുണ്ട് അപ്പോള് അവര്ക്ക് ഒരു താങ്ങുവിലയൊക്കെ കൊടുത്തിട്ടേ അവരുടെ പണി അവരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വിളകൾക്ക് അവരുടെ വലിയൊരു ഹാർഡ് വർക്കിൻ്റെ ഫലമാണല്ലോ ഇത് ഇതിന് അവർക്കൊരു നല്ലൊരു നല്ല രീതിയില് മുതലാകുന്ന രൂപത്തിലുള്ള വേതനവും കാര്യങ്ങളൊക്കെ കൊടുക്കണം അവര് ഇതിൻ്റെ പേരില് നമ്മള് ഒരിക്കലും പറ്റിക്കാൻ പാടില്ല